എൻ്റെ സ്ഥലങ്ങളിലാണെങ്കിൽ കൂടുതൽ ജനപ്രിയമായ കളികൾ എന്ന് പറയുന്നത് ഫുട്ബോൾ അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്നിവയാണ് ഫുട്ബോളിനും ക്രിക്കറ്റിനും ആരാധികർ എന്ന് പറഞ്ഞാൽ നിരവധിയാണ് നമുക്കിപ്പോൾ ഇപ്പോഴാണെങ്കിൽ അറിയാം ഫുട്ബോളിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് ഇന്ത്യ ഏറ്റോം കൂടുതൽ ഡെവലിപ്പിംങായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നമനങ്ങളുയർത്തി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫുട്ബോൾ ക്രിക്കറ്റ് പണ്ട് തൊട്ടേ നമുക്കെല്ലാം ഇഷ്ടവും നമ്മളെ സച്ചിൻ സച്ചിനെ സ്നേഹിക്കാത്തൊരു മലയാളികൾ പോലും ഇല്ല അതുകൊണ്ട് തന്നെ അത് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം സച്ചിൻറ്റെയൊരു ഇൻഫ്ലുവൻസൊണ്ട് ക്രിക്കറ്റിനൊരു ഇൻഫ്ലുവൻസെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ വളരെ അധികമാണ് ജനപ്രിയമായൊരു കളിയാണ് ക്രിക്കറ്റും അതുപോലെ തന്നെ ഫുട്ബോളും ബാക്കിയുള്ള എല്ലാ കളികളും മോശമാണെന്നല്ല ബാക്കിയുള്ള എല്ലാ കളികൾക്കും ആരാധകരുണ്ട് പോലെ ഉണ്ടെങ്കിൽ കൂടി ക്രിക്കറ്റിലും ഫുട്ബോളിലും ഉള്ളത്ര ആരാധകർ നമുക്കൊരെടത്തുമില്ല നമുക്കേറ്റോം കൂടുതൽ ഉദാഹരണമായിട്ട് എടുക്കാവുന്നത് കേരളത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കളിയൊക്കെ കാണുകായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം സ്റ്റേഡിയം മഞ്ഞ നിറത്തേലായിരിക്കും മഞ്ഞ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ ഫുൾ കപ്പാസിറ്റി ആൾക്കാരുണ്ടാവും ആ കളി കാണാൻ വേണ്ടി അത്രത്തോളം അത്രത്തോളം ആൾക്കാർ പാഷെയായിട്ടാണ് അത്രത്തോളം താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളീയർ സ്പോട്സിനോട് ഈ ഇന്ത്യൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ആവേശം കൊണ്ടാണ് ആൾക്കാരിരിക്കുന്നത് എത്രത്തോളം ആഹ്ളാദിക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ ഇന്ത്യ ജയിക്കുമ്പോഴാണേലും ഇന്ത്യ തോൽവിയിലെത്രത്തോളം നിരാശപ്പെട്ടാണ് ചിലപ്പോഴൊക്കെ ആൾക്കാർ വൈരാഗ്യപരമായിട്ടും പെരുമാറുന്നത് നമുക്ക് കാണാം തോറ്റ് കഴിയുമ്പോഴത്തേയ്ക്ക് സങ്കടം സഹിക്കാതെ ഇരിക്കുന്നതും ത്രെ ജയിച്ച് കഴിയുമ്പം സാഹ്ളാദം സഹിക്കാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന നമുക്ക് കാണാം ഇതെല്ലാം ഇതെല്ലാം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എത്രത്തോളം പാഷാനയ്ച്ചാണ് സ്പോട്സിനോട് ആൾക്കാർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് സ്പോട്സാ ഞങ്ങളുടെ ഇടയ്ക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് സ്പോട്സുകളാണ് ക്രിക്കറ്റും ഫുട്ബോളുവാണ് ഏറ്റോം ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെപ്പോഴും കളിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെപ്പോഴും കാണാൻ ശ്രദ്ധിക്കുന്ന കാണാം ശ്രമിക്കുന്ന ഏതൊരു കൊച്ച് കുഞ്ഞിനാണെപ്പോലും ആരാകണം എന്ത് കളിക്കണം എന്ന് ചോദിച്ചാൽ ഫുട്ബോളല്ലേ ക്രിക്കറ്റെന്ന് പറയും യും ഏതൊരു ഏത് നിരയിലാണ് നല്ല നിലയിലെത്തേണ്ടത് പഠിക്കുന്നത് അല്ലാണ്ട് കായികമായിട്ട് ഏത് കളിയിലാണ് നല്ല നിലയിൽ എത്തേണ്ടതെന്ന് ചോദിച്ചാൽ അവനുമുണ്ടാവും ഫുട്ബോളല്ലെ ക്രിക്കറ്റെന്ന് ചെറിയ പ്രായത്തിലുത്തരം പറയാൻ കാരണം അത്രത്തോളം ഇൻഫ്ലുവൻസ് തൻ്റെ മാതാപിതാക്കളിൽ കൂടി അത്രത്തോളം കൂടി നമുക്കത്രത്തോളം ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട് ക്രിക്കറ്റിനും ഫുട്ബോളിനുവൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കളികൾ നമ്മളേറ്റോം കൂടുതൽ മനസ്സിലേക്ക് ഇരുത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റോം കൂടുതൽ ആരാധകരുള്ളൊരു മേഖല കൂടിയാണ് ക്രിക്കറ്റ് ഫുട്ബോളും